ഹലോ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നേ ആ അതെ അതെ

ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ

കുറച്ച് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് പോ നിൽക്കുവോ

ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ അപ്പം ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നേ രുന്നേ പിന്നെ നമുക്ക് ഒരു നാലുപേർ അല്ലെങ്കിൽ ആറുപേരാണ് ഉണ്ടാവുക നമ്മൾ ഉറപ്പിച്ചിട്ടില്ല അപ്പം ക്യാബിൻ്റെ റേറ്റ് ഒക്കെ അറിഞ്ഞിട്ട് ഇപ്പം റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു വണ്ടി ഏർപ്പാട് ചെയ്യാം അല്ലെങ്കിൽ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയായിരുന്നേ വിളിച്ചത് നമ്മൾ ഇവിടുന്ന് വയനാടിൽ നിന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകാനാണ് ആ അതെ അതെ അതെ അപ്പം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഹസ്ബൻറ്റിൻ്റെ അച്ഛനും അമ്മയും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ കാര്യം ഉറപ്പില്ല ഉറപ്പില്ല അപ്പോൾ സുഖമില്ലാതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അപ്പം ഉറപ്പില്ല അപ്പം ചിലപ്പം അവർ മേയ്ബി അവർ ഉണ്ടാവും അപ്പം നമുക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത് അപ്പം നാല് സീറ്റിന് ഒക്കെ എത്ര നാല് സീറ്റ് വണ്ടിക്ക് എത്ര രൂപ റേറ്റ് വരും എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഓ ഫൈവ് തൗസൻഡ് അല്ലേ ആ നിങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണേ ഫുഡ് കാര്യങ്ങൾ താമസം ഒക്കെ നമ്മൾ തന്നെ ചെയ്യും നമുക്ക് ഒരു ഒരാഴ്ചത്തേക്കാണ് ആ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് മാത്രം ആ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പിന്നെ നിങ്ങൾക്കെന്തെങ്കിലും എക്സ്ട്രാ പൈസേൻ്റെ കാര്യം ഒന്നും ഒരു പ്രശ്നവുമില്ല പൈസ എത്ര വേണമെങ്കിലും തരാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ആറുപേർക്ക് ഉള്ളതിനാണെങ്കിലോ ഏഴായിരം രൂപ വരും അല്ലേ ആ ഓക്കെ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോളൂ കാരണം നമ്മളിപ്പോൾ വേറെ ഇവിടുന്ന് വണ്ടിയൊക്കെ ചോദിക്കുമ്പോൾ പതിനായിരം ഒക്കെയാണ് പറയുന്നത് നമ്മൾ ഫുഡും എല്ലാം പുറമെ കൊടുത്തിട്ട് അവർ പതിനായിരം ആണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തന്നെ നമ്മൾ ഉറപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ എന്നാൽ ഓക്കെ എന്നാൽ നമ്മൾ വിളിച്ചു പറയാം കേട്ടോ തലേദിവസം ഓക്കെ